അതെ എത്രാം ക്ലാസിലേക്കൊക്കെയാണ് അഡ്മിഷൻ വേണ്ടത് ഓക്കേ ഓക്കേ രണ്ടാം ക്ലാസ്സില് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ അറിയാമോ അപ്പോൾ രണ്ടാം ക്ലാസില് കുട്ടിക്ക് അഞ്ച് സബ്ജക്റ്റാണ് ഉള്ളത് മലയാളം ഇംഗ്ലീഷ് സയൻസ് ഹിന്ദി മാക്സ് അപ്പോൾ പിന്നെ ഫീസ് വരുന്നത് പതിനായിരം രൂപയാണ് കേട്ടോ അഡ്മിഷൻ ഫീസ് പതിനായിരം രൂപയാണ് അതുപോലെ എൽ കെ ജി പഠിക്കുന്ന അ കുട്ടിക്കും അഡ്മിഷൻ ഫീസ് പതിനായിരം തന്നെയാണ് വരുന്നത് രണ്ട് പേർക്കും പിന്നേ പിന്നെ ക്ലാസ് തുടങ്ങാനായി

യൂണിഫോമിൻ്റെ തുണി ഇവിടുന്ന് തരും സ്കൂളിൽ നിന്ന് തരും അപ്പോൾ അതിനും വേറെ ഫീസ് അതിനും വേറെ തന്നെയാണ് കേട്ടോ

ഇല്ല ഫീസ് അഡ്മിഷൻ ഫീസ് മാത്രമാണ് പതിനായിരം വരുന്നത് പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നേ യൂണിഫോമിൻ്റെത് അതുപോലെതന്നെ ആർട്സ് സ്പോർട്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ അതിനു വേറെ ഉണ്ട് കെട്ടോ ഹലോ പിന്നെ കുട്ടി ഓരോ പ്രോഗ്രാമിന് പങ്കെടുക്കുവാണെങ്കില് അതിൻ്റെ പ്രോഗ്രാം ഡ്രെസ്സ്കള് അതിനൊക്കെ വേറെതന്നെയാണ് ചാർജ് വരുന്നത് പിന്നെ യൂണിഫോം പിന്നെ അഡ്മിഷൻ ഫീസ് മാത്രമാണ് പതിനായിരം രൂപ വരുന്നത് പിന്നേ അ കുട്ടിക്കും അതുതന്നെയാണ് പിന്നെ സബ്ജെക്ട് മാറ്റം ഉണ്ടാവും സബ്ജെക്ട് എൽ കെ ജി പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പോൾ മാക്സിമം ഇംഗ്ലീഷും അങ്ങനൊക്കെ അതൊക്കെ ആണ് വിഷയം വരുന്നത് അ അങ്ങനെ അപ്പോൾ പിന്നെ വേഗം തന്നെ വന്നിട്ട് അഡ്മിഷൻ എടുക്കാം കേട്ടോ